ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന്